ആ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ഫ്രിഡ്ജുണ്ടല്ലോ നമ്മൾ ഓണത്തിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ സമയത്ത് നമ്മൾ ഇവിടെ അങ്കമാലിയിന്ന് വാങ്ങിയില്ലായിരുന്നോ അത് അത് വളരെ മോശമാണ് അത് അത്ര സുഖമൊന്നുല്ല അത് നമ്മൾ ആ ഡിസ്കൗണ്ട് നോക്കീട്ടന്നു ഒരു മൂവായിരം രൂപ കുറവു കിട്ടണത് കുറവു കിട്ടും എന്ന് നോക്കീട്ടന്നു വാങ്ങിയതാണ് ഇപ്പമത് വല്ലാത്തൊരു നമുക്കതുകൊണ്ടു പ്രത്യേകിച്ച് പ്രയോജനൊന്നും കിട്ടിയിട്ടില്ല അതിൻ്റെ ഫ്രീസറാണെങ്കിൽ എപ്പോഴും ഐസ് പിടിച്ചിട്ടേയിരിക്കുള്ളു നമ്മൾ എപ്പോഴും ഡിഫ്രോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഫ്രീസറിൽ തന്നെ വെക്കണമെന്നില്ല പലതും ഇപ്പോൾ സാധാരണ വേറെ ബോക്സസ്ലോക്കെ വെജിറ്റബിൾ ബോക്സിസിലൊക്കെ വെച്ച്ണ്ടെങ്കിൽ ഐസ് പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ പിന്നെ ഒട്ടും ഒട്ടും സ്പേഷിയസും അല്ല അപ്പം അതന്നങ്ങനെ ഓണം ഡിസ്കൗണ്ടൊക്കെ കണ്ടപ്പോൾ പോയി വാങ്ങിയതാണ്